എൻ്റെ ഫോട്ടോയിലൂടെ അതായത് ഞാൻ ഇന്ത്യയെ കാണിക്കാനായി എനിക്കൊരവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിക്കുക താജ് മഹൽ ആണ് കാരണം അതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരിതാണ് വൈബ് ആണ് അത് കാണുന്നവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറിറ്റ് ആണ് ആദ്യം ഞാൻ കാണിക്കുക താജ് മഹൽ തന്നെ ആയിരിക്കും പിന്നെ നമ്മടെ ഇന്ത്യയിൽ കാണാനായിട്ടു ഒരുപാടുണ്ട് ഞാൻ കാണിക്കുകയാണെങ്കിൽ മൈസൂർ പാലസ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് കാണിച്ച് കൊടുക്കാം അതൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ നമക്കിപ്പം ഗോവ ഗോവ ഒരു അടിപൊളി പ്ലേയ്സ് ആണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും സായിപ്പും മദാമ്മമാരെയൊക്കെയാണ് അവിടെ കാണാറ് അവിടൊരടിപൊളി വൈബ് പ്ലേയ്സ് ആണ് ഞാൻ എടുക്കുവാണെങ്കിൽ സെക്കൻഡ് വണ്ണും തേഡ് വണ്ണും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എനിക്കൊരവസരം ലഭിച്ചാൽ ഞാൻ ഒന്നാമത് തന്നെ താജ്മഹൽ കാണിക്കും പിന്നെ ഗോവ മൈസൂർ പാലസ്സ് കാണിക്കും അതുപോലെ തന്നെ ഊട്ടി കൊടൈയ്ക്കനാൽ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ട്രിപ്പിങ് പ്ലേയ്സ് ആണ് അതായത് ഇപ്പം എല്ലാവരും ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ വരുന്ന ഒരു പ്ലേയ്സ് ആണ് അവിടെയൊക്കെ കാണിച്ച് കൊടുക്കും കാണണം എന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടായിരിക്കും പൈസേൻ്റെ കാര്യം മൂലം ഒക്കെ വരാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അപ്പം അവർക്കൊക്കെ വേണ്ടി ഞാൻ അതൊക്കെ കാണിച്ചു കൊടുക്കും അപ്പം ഇതൊക്കെയാണ് എനിക്കൊരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുക